ഹലോ റോളെക്സ് റസ്റ്റോറന്റ് അല്ലെ ഞാന് അവിടുന്ന് കുറച്ച് സാധനങ്ങള് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എത്ര സമയം കൊണ്ടാണ് എത്തുക എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് വിശന്ന് ഇരിക്കുവായിരുന്നു അപ്പോൾ എത്ര സമയം കൊണ്ട് എത്തും ആഹ് കുറച്ച് കഴിയും അല്ലെ ആ അല്ല അതെന്താ ഇത്ര ലേറ്റ് ആകാൻ കാരണം ഞാന് നേരത്തെ ഓർഡർ ചെയ്തായിരുന്നു ഒരു പത്തുമണിയായപ്പം ഓർഡർ ചെയ്തായിരുന്നു ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല ആ ആഹ് ഓക്കെ അല്ല അത് നിങ്ങള് പറയ് പറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ഓർഡറ് പിന്നെ വേറെ എവിടെയെങ്കിലും ഓർഡർ ചെയ്യില്ലായിരുന്നോ ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഓർഡർ ചെയ്തത് പക്ഷെ നിങ്ങള് ഇതേവരെ എന്ത് ചെയ്യുവ ഓർഡർ ഇവിടെ എത്തിയിട്ടുമില്ല വെറുതെ നമ്മള് വെറുതെ വിശന്ന് ഇരുന്നിട്ട് എന്താ പറയുക അങ്ങനെ ഇരിക്കുകയാണ് നമ്മള് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ വല്ലാതെ ചൂടാവനൊക്കെ തുടങ്ങി അപ്പോൾ അവിടുന്ന് ക്യാൻസൽ ചെയ്തിട്ട് വേറെ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്യാനാണ് അവര് പറയുന്നത് ഇല്ലേൽ അവിടെ പോയിട്ട് നിങ്ങളുടെ അടുത്തല്ല വേറെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാം എന്നാണ് പറയുന്നത് അല്ല വെറുതെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു നല്ലൊരു ഹോട്ടൽ ആയതുകൊണ്ടാണ് ഓർഡർ ചെയ്തത് പക്ഷെ ഇത്ര ലേറ്റ് ആകുമെന്ന് അറിയുമായിരുന്നെങ്കിൽ നമ്മള് വേറെ സ്ഥലത്ത് നിന്ന് ഓർഡർ ചെയ്തേനെ ആഹ് ആഹ്ഹ് അല്ല അത് ശരിയല്ലല്ലോ നിങ്ങള് ആ പറഞ്ഞത് ശരിയായില്ലല്ലോ നമ്മള് നിങ്ങളുടെ ഒരു നല്ലൊരു റിവ്യൂ ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് ഓർഡർ ചെയ്തത് ഇക്കണക്കിന് പോയാൽ നമ്മൾ എന്താ ചെയ്യുക റിവ്യൂ ബാഡ് ആക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ അതിലും നല്ലത് നിങ്ങള് വേഗം ഓർഡർ എത്തിക്കാൻ നോക്ക് നിങ്ങൾ ഈ വെറുതെ എന്താ പറയുക ന്യായമില്ലാത്ത കാര്യങ്ങള് വെറുതെ പറഞ്ഞ് ഇതാക്കണ്ട നിങ്ങളുടെ റേറ്റിംഗ് തന്നെയാണ് പോവുക നിങ്ങള് പരമാവധി വേഗം എത്തിക്കാൻ നോക്ക് കെട്ടോ അല്ലെങ്കിൽ ഞങ്ങള് ഓർഡർ ക്യാൻസൽ ചെയ്യും ഞങ്ങളൊരു അഞ്ച ഒരു അര മണിക്കൂറും കൂടെ നോക്കും അതുംകൂടി കഴിഞ്ഞ് ഞങ്ങള് ഓർഡറ് ക്യാൻസൽ ചെയ്യുമേ ആഹ് ഓക്കേ